പ്രമേഹമെന്ന രോഗം സമൂഹത്തെ കാർന്നുതിന്നുകൊണ്ടിരിക്കുന്ന വലിയ ഒരു വിപത്താണ് ഇപ്പോൾ സമൂഹത്തിലുള്ള പല ആളുകളും ഈ പ്രമേഹത്തിന് അടിമകളായിട്ടുണ്ട് ശരിയായ എക്സർസൈസ് ഒന്നുമില്ലാത്തതാണ് ഇതിൻ്റെ പ്രത്യേകമായ ഉണ്ടാകുവാനുള്ള കാരണം മാത്രവുമല്ല മറ്റു രോഗങ്ങളുടെ കൊടുക്കുന്ന മരുന്നുകൾ സൈഡ് ഇഫെക്റ്റുള്ള മരുന്നുകൾ കഴിക്കുന്നതുവഴി പ്രമേഹം ഇല്ലാത്ത ആളുകൾക്ക് പോലും പ്രമേഹം പിടിപെടുന്ന ഒരു സ്ഥിതി നമുക്ക് കാണുവാൻ സാധിക്കും പിന്നെ കുറേയൊക്കെ പാരമ്പര്യമായിട്ടും കാർന്നോന്മാർക്കുമൊക്കെ ഡയബെറ്റിക്കുണ്ടെങ്കിൽ അത് ഹെറിഡിറ്ററി ആയിട്ട് പിന്തുടർച്ചാവകാശികളിലേക്കു വരുന്ന ഒരു സ്ഥിതി വിശേഷം നമ്മൾ ഇതിന് ശരിയായ എക്സർസൈസ് രാവിലെ നടത്തം ഒക്കെ നടത്തുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ഇതു കുറക്കാൻ സാധിക്കും അതുപോലെതന്നെ ശരിയായവിധത്തിലുള്ള ഡയറ്റ് കണ്ട്രോൾ മധുരമുള്ള ഇതു വന്നു കഴിഞ്ഞാൽ മധുരമുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യുക പച്ചിലകൾ പച്ചിലകൊണ്ടുള്ള പലപല വെള്ളങ്ങൾ കുടിക്കുക നമ്മളുടെ പാവൽ ഇതിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞ് അതിൻ്റെ നീര് കുടിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഗ്രാമത്തിൽ പ്രചാരത്തിലുള്ള ചില നാട്ടുവൈദ്യങ്ങൾ അതുപോലെതന്നെ കൂടുതൽ നടക്കുക വിയർക്കാനുള്ള അവസരം ഉണ്ടാക്കികൊടുക്കുക വെള്ളം ധാരാളം കുടിക്കുക പലപല നാട്ടുചികിത്സാരീതികളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പക്ഷെ അതെത്രത്തോളം ഇഫക്റ്റീവാണെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു നാട്ടുവൈദ്യന്മാർ ഇങ്ങനെ കബളിപ്പിക്കലായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് അതിൽ ചെന്നുപെടാതെ നമ്മൾ ശരിയായ വിധത്തിലുള്ള അനുഭവ അനുഭവത്തിൽനിന്നു ലഭിച്ച അറിവുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ കിട്ടിയിട്ടുള്ള ആളുകൾ പോയിട്ടുള്ള വൈദ്യന്മാരെ സമീപിച്ചു കൊണ്ട് അവരിൽ നിന്നും ശരിയായ രീതികൾ നാട്ടു വൈദ്യങ്ങൾ ചെയ്ത് പ്രമേഹത്തെ കുറയ്ക്കുക ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭക്ഷണം കണ്ട്രോൾ ചെയ്യുക ശരിയായ വ്യായാമം ഇതാണ് ഇതിനുള്ള ഏറ്റവും വലിയ പോംവഴി